നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേർ കരകൗശലമേഖലയിലും മരപ്പണിമേഖലയിലും മൺപാത്ര നിർമ്മാണമേഖലയിലും ഉണ്ട് എന്നിരുന്നാലും മുൻപത്തെ അപേക്ഷിച്ച് ഇന്ന് മൺപാത്രനിർമ്മാണത്തിലെല്ലാം തന്നെ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് പണ്ട് ഒരുപാടുപേർ മൺപാത്രമേഖലയെ ഉണ്ടായിരുന്നു എന്നാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് മൺപാത്രനിർമ്മാണത്തിൽ ഇതിൽ കുറവ് വന്നിട്ടുണ്ട് എന്തെന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മൺപാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി കുറഞ്ഞതു തന്നെയാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾ കൂടുതലും അടുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറഞ്ഞതുകൊണ്ട് തന്നെ മൺപാത്രത്തിലുള്ള ഫുഡ് ഉണ്ടാക്കലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മൺപാത്ര നിർമ്മാണ മേഖലയിൽ ചെറിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് മരപ്പണി കരകൗശലമേഖല എന്നിവയിൽ നിന്ന് ഒരുപാടുപേർ ഇന്നും ഉണ്ട് മരപ്പണി ഏതൊരു കാലഘട്ടത്തിലും അനിവാര്യമായ ഒന്നാണ് ഏതൊരു വീട് വയ്ക്കുന്നവർക്കും അല്ലാതെ തന്നെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഓഫീസായിക്കോട്ടെ സ്കൂളായിക്കോട്ടെ മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെ ആണെങ്കിൽപ്പോലും മരം കൊണ്ടുപയോഗിച്ചിട്ടുള്ള തടികൾ മരം ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചറുകളൊക്കെ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടുതന്നെ ആ മേഖലയിൽ മരപ്പണി മേഖലയിൽ ഇന്നും ഒരുപാട് ആളുകൾ ഉണ്ട് ഏതൊരു ബിൽഡിങ്സ് വീട് എന്തുതന്നെ ആവശ്യങ്ങളിലെ ആവശ്യക്കാരാണെങ്കിലും അവിടെയെല്ലാം ഒരു മലപ്പണിക്കാരൻ്റെ ആവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതുകൊണ്ടുതന്നെ മൺപാത്ര നിർമ്മാണത്തേക്കാൾ കൂടുതൽ മരപ്പണിക്കാരും കരകൗശല്ല പണിക്കാരും ഇന്നത്തെക്കാലത്ത് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കരകൗശല സാധനങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണെന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇവ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കരകൗശല മേഖലകളും കരകൗശല സാധനങ്ങളും വാങ്ങിക്കാനും ഫോറിൻ കൺട്രീസിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത് അത്ഭുതകരമായി കാണുകയും ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആളുകളും ഒരുപാട് ഉണ്ട് അതുകൊണ്ടുതന്നെ കരകൗശല മേഖലകൾ ഇന്നും സമൃദ്ധിയായി തന്നെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മരപ്പണിക്കാരുടെ ആവശ്യക്കാരും മരപ്പണിക്കാരുടെ പണികളും ഇന്നും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ എന്നും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും ജീവിത ജീവിതത്തിലെ ആവശ്യമായ എല്ലാ സാധനങ്ങൾക്കും മരപ്പണിക്കാരെ ആവശ്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ആാവശ്യമായ എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കുവാനും ഫർണിച്ചറുകളായാലും മറ്റും എല്ലാത്തിനും ഒരു മരപ്പണിക്കാരൻ നിർബന്ധമാണ് അതുകൊണ്ടുതന്നെ ഈ ഈ മേഖലയിലുള്ളവർക്കെല്ലാം ഇന്ന് തൊഴിലുകൾ സമൃദ്ധിയയായി തന്നെ ഉണ്ട്